ഓ അതെ ഈ പറയുന്നതുമായി ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ഇപ്പോൾ കുട്ടികൾ സ്ക്രീനുകളുടെ മുന്നിൽ മാത്രമാണ് ഫോണും ടീവിയും മുമ്പായിരുന്നു ടീ വി ഇപ്പം എല്ലാവർക്കും ഫോൺ മാത്രം മതി ഫോണിൻ്റകത്ത് പലതരം ഗെയ്മുകളുണ്ട് ഗെയ് ഫ്രീഫയറങ്ങനെ പല വെടിവയ്ക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഓരോ കാറ്റഗറീസായിട്ട് കുട്ടികൾക്ക് ഏറ്റവും ചെറിയ കുട്ടികൾക്കുള്ളത് പിന്നെ വലിയവർക്ക് ഹൈറ്റുള്ളത് പിന്നെ പെൺകുട്ടികൾക്ക് വേറെ കാറ്റഗറി അങ്ങനെ പല തരത്തിലുള്ള ഗെയിമുകളുണ്ട് അപ്പം അവർ അതിൻ്റകത്തു തന്നെ ഇരിക്കുകയാണ് അത് അവർക്ക് അവരുടെ ശരീരം ശരീരത്തിനും അവരുടെ മാനസികമായും തലക്കും അവരുടെ ബുദ്ധിക്കും ഒക്കെ കുഴപ്പം ഉണ്ടാകുന്നുണ്ട് പക്ഷെ ബുദ്ധിവർദ്ധിപ്പിക്കുന്ന പല ഗെയിമുകളിപ്പോൾ ഫോണിലുണ്ടെങ്കിൽപ്പോലും നമ്മൾ പുറത്ത് കളിക്കുന്ന ഗെയിമുകളെപ്പോലെ ഒരു രസവും കാണില്ല പണ്ട് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരൂ ഒരു അൻ ഒരേഴെട്ടു വർഷം മുമ്പാണ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തിറങ്ങു ഒരു സമയം ആകുമ്പോൾ അല്ലേ സ്കൂൾ അടക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ഗ്രൗണ്ടും അല്ലാതെ ആയിട്ട് നമ്മൾ നടക്കും ഫുട്ബോൾ ക്രിക്കറ്റ് അങ്ങനെയുള്ള പലരീതികളുള്ള കളികളും പിന്നെ ചെളിയിലും ചേറിലുമൊക്കെ കിടന്നാൽ നമ്മൾ കളി കളിക്കുന്നത് അത് എല്ലാവർക്കും അതായിരുന്നു ഇത് അന്നേയെന്നു പറഞ്ഞാൽ നമ്മളൊരു ഒൻപത് മണിവരെ ഉറങ്ങും അതിനു ശേഷം നേരത്തെ നേരെ എണീക്കുന്നു അപ്പോൾ എക്ക് ഫുഡ്ഡു കഴിയ്ക്കോ കഴിയ്ക്കൂലെന്നു നോക്കാൻ തന്നെ അപ്പോഴേ പോകുന്നത് നേരെ കളിച്ചെലഗ്ഗ് ഗേ കളിക്കാൻ വേണ്ടി ആയിരിക്കും ചിലപ്പം മഴ പെയ്തു നനഞ്ഞു ചെളിയൊക്കെ ആയ്ക്കെ ആയിട്ടായിരിക്കും ഗ്രൗണ്ടിൽ കിടക്കണത് അപ്പം നേരെ പ പന്തെടുത്തിരുന്നു അവിടെ മറിഞ്ഞടിച്ച് വീഴുന്നതും വീഴുന്നത് എണീറ്റുനിന്നത് ചെളിയിലും പിന്നെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ ഫ്ലാറ്റിലോ തോട്ടിലോ ഒക്കെപ്പോയി ഇറങ്ങിക്കുളിച്ച് കയറിവരപ്പം അതൊരു പ്രത്യേക രസമായിരുന്നു അന്ന് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കങ്ങനത്തെ രസങ്ങളേക്കുറിച്ചൊന്നും അറിയില്ല ഇപ്പോഴത്തെ കുട്ടികൾ മൊത്തം മൊബൈൽ ഫോണിലാണ് മൊബൈൽ ഫോണിലാണെങ്കിൽപ്പോലും ചില കുട്ടികൾ മാത്രം അതും ചിലപ്പോൾ ചില സമയങ്ങളിൽ മാത്രം ഗെയിം കളിക്കുക കളിക്കാനൊക്കെ ആയിട്ട് പുറത്തിറങ്ങും പിന്നെ ചെസ്സ് ബോഡ് ക്യാരം അതൊക്കെ ഇതിൻ്റെയിടയിലും മഴസമയത്തും പിന്നെ വൈകുന്നേരം രാത്രിയൊക്കെയായാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെയാണ് കളിക്കണത് ക്യാരം ബോഡ് ചെസ് ബോഡ് അങ്ങനെ പലതുമുണ്ടായിരുന്നു ലുഡോ സ്നേക്ക് ലാഡർ പിന്നെ പെൺകുട്ടികൾക്കാണെങ്കിൽപ്പോ ലും പല തരത്തിലുള്ള കളികൾ അവരൊക്കെ പുറത്തിറങ്ങി പിന്നെ നമ്മുടെ ഏറ്റവും വൈബ് കളിയായിരുന്നു നമ്മളേറ്റവും കൂടുതലാസ്വദിച്ചു കളിക്കുന്നൊരു കളിയും കൂടിയായിരുന്നു ഗോലികളി അതും ഗോലികൾ പെറുക്കി കുഴിച്ചിട്ടിട്ട് ഗോലി അടിച്ച് കളിക്കും അതൊക്കെ ഒരുപാട് രസമുള്ള കളികളായിരുന്നു പിന്നെ കല്ലുകളീ അങ്ങനെ പലതും കല്ലുകളിയൊക്കെ ഒരുപാട് നമ്മൾ കളിച്ചിട്ടുള്ളതാണ് അത് സ്കൂളുകളാണെങ്കിൽപ്പോലും അല്ലാതെ ആണെങ്കിൽപ്പോലും നമ്മൾ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളൊരു കൂടുതൽ കളിച്ചിട്ടുള്ളതും ശരീരമനക്കാതെ കൈ മാത്രമനക്കി കൂടുതൽ കളിച്ചിട്ടുള്ള കളിയാണ് നമ്മുടെ കല്ലുകളിയെന്നു പറയുന്നത് ഇപ്പോൾ കുട്ടികൾക്കങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഫോണും പിടിച്ചുകൊണ്ടിരുന്ന് നേരെ ഗെയിമുകൾ വീടി വെടിവയ്പ്പു കളിയാണെങ്കിൽ വെടിവെപ്പ് അങ്ങനെ പലരീതിയിലുള്ള കളികളുമായി അവരങ്ങ് പോകുകയാണ് പക്ഷെ ഇപ്പോഴും ചിലർ നാലുമണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിക്കളിക്കുന്നതു കാണാം അപ്പോൾ ഇപ്പോഴും നമ്മൾ നമ്മളെ പഴയ കാലത്തിലേക്കു പോകും അത് നമ്മൾ പഴയകാലത്ത് പിന്നെ സ്കൂളുള്ള സമയങ്ങളാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരമാണ് കളി മുഴുവൻ വെകുന്നേരം നമ്മൾ സ്കൂളൊക്കെ വിട്ടു വന്നാൽ ഉടൻ നേരെ ഉടുപ്പുവൂ ഡ്രെസ്സും ഊരിയിട്ട് വല്ലതും കഴിച്ചു കൊണ്ട് നേരെ ഇറങ്ങുകയാണ് ഗ്രൗണ്ടിലോട്ടാണെ ഗ്രൗണ്ടിലോട്ട് അല്ലാതെയാണെങ്കിൽ അല്ലാതെ നമ്മൾ പോയപ്പഴേ കളിക്കേണ് ക്രിക്കറ്റ് ഫുട്ബോൾ പല രീതിയിലുള്ള കളികൾ പക്ഷേ ഇപ്പോഴും നമ്മൾ കളിക്കുന്നുണ്ടെങ്കിൽപ്പോലും ഇപ്പം പുറം കളികളുണ്ട് ടർഫുകളിൽപ്പോയി ഫുട്ബോൾ കളിക്കാണ്ട് ക്രിക്കറ്റ് കളിയ്ക്കാൻ അങ്ങനെയൊക്കെ പോകുന്നവരുണ്ട് ഞാനൊക്കെ ഇപ്പോഴും പോകും നമ്മളിപ്പോഴും ടീമൊക്കെ ആയിട്ട് പോകും മറ്റതെന്നു പറഞ്ഞാൽ നമുക്ക് കബഡി കളി കബഡി കളിക്ക് ഒരുപാട് നമ്മൾ കളിച്ചിട്ടുള്ളതാണ് എന്നുപറഞ്ഞാൽ അതൊക്കെ ശരീ ചിലർക്കൊക്കെ പരിക്കു പറ്റുന്നുണ്ടെങ്കിൽപ്പോലും ഒരുപാട് നമ്മൾ കളിച്ചിട്ടുള്ള കളികളാണ് എന്നാലതൊക്കെ ഒരു പ്രത്യേക രസമായിരുന്നു അന്നൊക്കെ ആ കളികൾ കളിക്കുവാൻ ശെ ഇപ്പോഴത്തെ കുട്ടികൾക്കതിൻ്റെ ഒന്നും കാര്യമറിയില്ല കാരണം അവരുടെയൊക്കെയപ്പോൾ അവർക്ക് ഫോണിലെല്ലാമുണ്ട് ഈ ഫോൺ കളി ഒരു ഒരു കാരണവശ ഏറ്റവും കൂടുതൽ വർണ്ണതിൻ്റെ കാരണം രക്ഷിതാക്കളുടെ കൈയ്യിൽ നിന്നുള്ള വീഴ്ചയാണ് രെക് രക്ഷിതാക്കളാണിവരെ ഈ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഫോണിലേക്ക് അഡിക്റ്റാക്കുന്നത് രക്ഷിതാക്കൾ അവരുടെ അവർ പുറത്തിറങ്ങി കളിക്കാതിരിയ്ക്കട്ടെ അങ്ങനെ വിചാരിച്ച് ഫോൺ കൊടുത്തു തുടങ്ങിയാൽ പക്ഷെ ഇപ്പം കുട്ടികൾ പുറത്തിറങ്ങുന്നില്ല പല ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കുട്ടികളെ പുറത്തിറക്കാൻ നോക്കുന്നത് പിന്നെ ഇപ്പോൾ ഫോൺ ഗെയ്മുകൾ വഴി എത്രയൊക്കെയോ കുട്ടികൾ ഓരോ അപകടങ്ങളിൽ പെട്ടു പോകുന്നുണ്ട് അപ്പോൾ ഒരുപാട് രക്ഷിതാക്കൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഫോൺ കൊടുത്തു നശിപ്പിക്കുന്നത് അവർ പുറത്തിറങ്ങിക്കളിക്കാനുള്ളൊരു അവസരം അവർക്ക് കൊടുക്കണമായിരുന്നു ഇപ്പോഴത്തെ ഇപ്പോൾ ഇനി ഇപ്പം ജനിക്കുന്ന കുട്ടിയാണെങ്കിൽ അവർ പിന്നെയും ഫോണിലോട്ട് തന്നെയാണ് ഇനിയും അവർ ഫോണിലോട്ട് മാത്രമേ അവർ കളിക്കുക ഇനി ഇനിയുള്ള ജെൻറേഷൻ മൊത്തവും ഫോണിലോട്ടായിരിക്കും ഇനിയൊഞ്ചാറ് ജെനറേഷനുടെ അത് മൊത്തമതായിരിക്കും ഇപ്പം നമ്മടെയൊക്കെ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരൂ ക്രിക്കറ്റ് ഫോട്ബോൾ അങ്ങനെ പല കളികളും നമ്മളുണ്ടാ എല്ലാവർക്കും ഇപ്പത്തന്നെ ആലോചിക്കത്തന്നെ ഒരുപാട് കൊതിയാകുന്നുണ്ട് ആ കളികൾ കളിക്കാനായിട്ട് പിന്നേ പെൺകുട്ടികളെന്നു കളിക്കുന്ന കണ്ട് നമ്മൾ നോക്കിനിന്നിട്ട് അവരടുത്ത് ചോദിക്കും ട്യേ ഒരു ഞൊണ്ടിക്കളി അങ്ങനെ പല കളി അപ്പം അതിൻ്റെയിടക്ക് നമ്മൾ അവർ ചിലപ്പോൾ കളിപ്പിക്കും പിന്നേ കുറേ നാൾക്കു മുൻപൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പിന്നെയും നമ്മളൊക്കെ സമയമായപ്പോഴും കോലിക്കളിയൊക്കെ വലുതായിട്ട് കുറഞ്ഞുവന്നു പക്ഷെ ഏറ്റവും കൂട്തൽ ഞാൻ പറയുന്നതെന്നു പറഞ്ഞാൽ രക്ഷിതാക്കളുടെ കൈഴിൽത്തന്നെയാണ് തെറ്റ് കൂടുതലുമുള്ളത് കുട്ടികളെ അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ക്രീനുകൾ ഇതിനു മുൻപൊരഞ്ചാറ് വർഷം മുൻപ് ആയിരുന്നെങ്കിൽ ടീ വി സ്ക്രീനുകളായിരുന്നു നമ്മളെ ഏറ്റവും കൂടുതൽ വി നമ്മളുടെ സമയത്ത് ടീ വി ഉണ്ടായിരുന്നെങ്കിൽപ്പോലും കൂട്ടുകാർ വന്ന് വിളിക്കുമ്പോൾ നമ്മൾ അപ്പോഴേ പോകുമായിരുന്നു ചിഷെ അതിൻ്റെ ഇടേ പിന്നെ കാർട്ടൂൺസിലൊക്കെ ആയിപ്പോയി കുട്ടികൾ പിന്നെ ഫോണെന്നു പറഞ്ഞത് വന്നു ഇപ്പം ഫോണിൻറ്റകത്തായി എല്ലാ കുട്ടികളും ഇപ്പോൾ ഫോണാണ് ഏറ്റവും വലിയ ഇതായിട്ട് കുട്ടികൾക്ക് അപ്പം രക്ഷിതാക്കൾത്തന്നെ അറിഞ്ഞ് ഫോണുകളൊക്കെ മാറ്റി പുറത്തോട്ടിറക്കാൻ നോക്കുക